മത്സ്യബന്ധനം ഒരു തൊഴിലാണ് തൊഴില് എന്നതിനേക്കാളുപരിയായിട്ട് അതൊരു നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വിനോദം നൽകുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഒത്തിരി ടെൻഷനൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ഇങ്ങനെ മീന് ചൂണ്ടയിടാൻ പോവുക പോയി ഒരു കടൽത്തീരത്തോ അല്ലെങ്കില് കായൽത്തീരത്തൊക്കെയിരിക്കുമ്പോള് ചൂണ്ടയില് ഇര കോർത്ത് വെള്ളത്തിലേക്കിടും ഇടുന്നതും അതുപോലെ മീൻ വന്ന് അതിനെ ഇര വിഴുങ്ങുന്നതും മീനെ വലിച്ച് കരയ്ക്കടുപ്പിക്കുന്നതുമായിട്ടുള്ള ആ ഒരു രംഗം അത് പലപ്പോഴും ഒരു വിനോദപൂർവ്വമായിട്ടുള്ളൊരു കാര്യം വിനോദം തരുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഞാനത് ഒത്തിരി ആസ്വദിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം ഇതൊരു തൊഴിലായിട്ട് തന്നെ തൊഴില് എന്നതിനേക്കാളുപരിയായിട്ട് ഇതൊരു നമ്മളെ സംബന്ധിച്ചി നമ്മുടെയൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ കൊണ്ടുപോകാം പലപ്പോഴും ഈ മുക്കുവൻമാരും അതുപോലെ മീൻ പിടുത്തക്കാരായിട്ടുള്ളവരൊക്കെ ഈ തൊഴിലിനോടു കാണിക്കുന്ന ആത്മാർത്ഥതയും അതിനു കിട്ടുന്ന വരുമാനത്തേക്കാളുപരിയായിട്ട് അതിനോടു കാണിക്കുന്നൊരു ആത്മാർഥതയും അതിൽനിന്നു കിട്ടുന്ന അവർക്ക് കിട്ടുന്നൊരു സന്തോഷവുമൊക്കെ പ്രത്യേകമായിട്ട് നമ്മള് കാണേണ്ടതാണ് അതൊത്തിരി നല്ലൊരനുഭവമാണ് അപ്പോഴൊരു വരുമാനം ലഭിക്കുന്നതിനേക്കാളുപരിയായിട്ട് അതൊരു ഒരു വിനോദത്തിന്റെയും ജീവിതത്തിന് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും അതിനെ മാറ്റി വിനോദം നൽകുന്ന എന്നും നമ്മുടെ മടുപ്പുള്ള ജീവിതത്തില് സന്തോഷവും സമാധാനവും നല്ലൊരു ഉണർവും നൽകുന്ന കാര്യമായിട്ടാണെനിക്കു തോന്നാറുള്ളത്